ആ ഹലോ ആ ആ സാർ എനിക്കൊരു കംപ്ലെയിന്റ് തരാനായിരുന്നു ഞാൻ വിളിച്ചത് ആ സാർ ഈ ഇടയ്ക്കാണ് ഈ കുട്ടിക്കാനത്ത് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പം എന്നെ ബാക്കിൽ നിന്നൊരു കാറിടിക്കുകയും എൻ്റെ വണ്ടിയുടെ പെയിൻ്റ് പോവുകയും ചെയ്തിരുന്നു ആപ്പോൾ അതിനൊരു കംപ്ലെയിൻ്റ് കൊടുക്കാനാണ് ഞാൻ വിളിച്ചത് ഇന്നലെ ഒരുച്ചയോടെയായിരുന്നു ഒരു ഒരു മണിയൊക്കെയോടെ

ആ വണ്ടിയുടെ നമ്പറ് കെ എൽ സീറോ വൺ സീറോ സീറോ എയ്റ്റ് സീറോ

അതെ എൻ്റെ കെ എൽ സീറോ ടു വൺ സീറോ അതെ അതെ അതെ സാർ ഞാൻ എൻ്റെ ശരിക്കുള്ള വീട് തൊടുപുഴയാണ് ഇവിടെ ഒരു കാര്യത്തിനുവേണ്ടി വന്നതായിരുന്നു അപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടന്നത് ഓക്കെ സാർ ഓക്കെ സാർ അതറിയില്ല സാ അത് ഞാൻ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ വണ്ടിയുടെ അതിപ്പം കൊണ്ടുവന്നാൽ മതിയോ

ഓക്കെ സാ എന്തെങ്കിലും സർട്ടിഫിക്കറ്റെന്തെങ്കിലും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്തെങ്കിലും സർട്ടിഫിക്കേറ്റ് എന്തെങ്കിലും കൊണ്ടുവരേണ്ട ആവിശ്യം ഉണ്ടോയെന്ന്

ഓക്കെ സാ ഓക്കെ സാർ

സാ എന്തായാലും പെരുവന്താനം ആ അവിടയല്ലേ വരണ്ടേ

ഓക്കെ സാർ അതെ സാർ ടൈമൊന്നു പറയാമോ

ഓക്കെ സാർ സാർ ഇനി എന്തെങ്കിലും ഡീറ്റെയ്ൽസൊന്നും ഇല്ലല്ലോ എൻ്റെ പേര് അഭിനവ് അഭിനവ് നാഗേഷ്

ആ സാർ ഞാൻ കറൻലി വർക്ക് ചെയ്യുകയാണ് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ അടുത്ത് തൊടുപുഴയിൽ തന്നെ ഒരു ന്യൂമാൻ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്

ഓക്കെ ഓക്കെ താങ്ക് യു സാർ